വീടിനടുത്തുള്ള അഞ്ചു പേര് ഒന്ന് ജോസ് ജോർജ് പറവി കുന്നേൽ കെ വി വർഗീസ് കാരിക്കാട്ട് റോയ് ജോൺ മുല്ലാട്ട് തുണ്ടത്തിൽ നെൽസൺ ജോണ് പലാട്ട് തുണ്ടത്തിൽ

ജോജി കാരിക്കാട്